ഇപ്പോൾ കൊതുക് പരത്തുന്ന രോഗങ്ങളെ നമുക്ക് പ്രതിരോധിക്കാനുള്ള വഴി എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് കൊതുകിൻ്റെ കടി നമ്മൾ ഏൽക്കാതിരിക്കുക കൊതുകിനെ നമ്മൾ തുരത്തി വിടുക ഇപ്പോൾ കൊതുകിനെ വളരാനുള്ള ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ നമ്മൾ മഴക്കാലങ്ങളിലൊക്കെ ഈ ചിരട്ടയോ അല്ലെങ്കിൽ ടയർ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൾ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ ചില്ല് കുപ്പി എന്തെങ്കിലും നമ്മളിപ്പോൾ തൊടിയിലൊക്കെ ഇടുന്ന സമയത്ത് വെള്ളം കെട്ടി നിൽക്കും അപ്പോൾ അതിൽ കൊതുക് മുട്ടയിടും അങ്ങനെ കൊതുക് വളരും ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ടും കാണുന്നത് ഈ ടയറുകളിൽ ഇടയിലൊക്കെ ഇങ്ങനെ വെള്ളം കയറി നിന്നിട്ട് അതിൽ കൊതുക് മുട്ടയിടും അതേപോലെ ചിരട്ടകൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും കൂടുതലും കണ്ടുവരുന്നത് ഇപ്പോൾ ചിരട്ട ഒക്കെ തൊടിയിലൊക്കെ അലക്ഷ്യമായി വലിച്ചെറിയും അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ വെള്ളം കയ് മഴവെള്ളം വന്നിരുന്നു കൊതുക് അതിൽ മുട്ടയിടും കൊതുക് മുട്ടയിട്ട് അതിങ്ങനെ വളരുകയാണ് ഒരു മുട്ട ഒരു തവണ ഒരു പത്ത് നാൽപ്പത് കൊതുകുകളാണ് വളരുന്നത് ദിനംപ്രതി കൊതുകുകൾ ഇങ്ങനെ വളരും അപ്പോൾ അത് നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്യുകയാണ് അപ്പോൾ മെയിനായിട്ട് തടയേണ്ടത് ഈ കൊതുകുകളുടെ വളർച്ചയാണ് നമ്മൾ തടയേണ്ടത് ഇപ്പോൾ ഈ അഴുക്ക് ചാലുകൾ ഓടയിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ നമ്മൾ ഗപ്പി മീനിനെയൊക്കെ കൊണ്ട് ഇടുക അല്ലെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുക നമ്മുടെ തൊടിയൊക്കെ നമ്മൾ വൃത്തിയാക്കി വെക്കുക എവിടേലും കാട് പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു പറഞ്ഞാൽ നന്നായിരിക്കും എന്തെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്കറിയും കുറച്ചു വെള്ളം കെട്ടി നിൽക്കുകയോ അല്ലെങ്കിൽ കുപ്പിയോ പാട്ടയോ എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയും അപ്പോൾ അങ്ങനെ ചെയ്യുക കൊതുകിൻ്റെ ഉറവിടം നമ്മൾ ആദ്യം നശിപ്പിക്കുക പിന്നെ നമ്മൾ വീടുകളിൽ ജനൽ ഒക്കെ അടച്ച് കൊതുകുകൾ വരാതെ നോക്കുക മോസ്കിറ്റോ വലകൾ ഉപയോഗിച്ച് കിടക്കുക അതുപോലെ ചൂടുവെള്ളം കുടിക്കുക നമുക്ക് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ ഈ നമ്മൾ ഈ കൊതുക് വരാണ്ടിരിക്കാൻ ഉള്ള സ്പ്രേ ഉണ്ടല്ലോ സ്പ്രേ അല്ലെങ്കിൽ കൊതുക് തിരി ആൾ ഔട്ട് അങ്ങനെയുള്ള ഇതൊക്കെ യൂസ് ചെയ്യുക കൊതുകുകളെ നമ്മളെ നമ്മളെ വീട്ടിൽ നിന്ന് അകറ്റി വിടുക പിന്നെ എന്ന് പറഞ്ഞാൽ ചെറിയ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ കാണിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കാണിക്കുക അതിന് ട്രീറ്റ്മെൻറ് എടുക്കുക നമ്മൾ സ്വയം ചികിത്സ ചെയ്യാതിരിക്കുക മെയിനായിട്ട് നമ്മൾ കൊതുകിൻ്റെ ഉറവിടം നശിപ്പിക്കുക കൊതുകുകൾ കടിക്കാതെ നേരെ നോക്കുക അങ്ങനെ ചെയ്യുക മോസ്കിറ്റോ വലകളൊക്കെ ഉപയോഗിച്ച് കിടക്കുക അതെ പോലെ എയർഹോള് ജനൽ ഒക്കെ അടക്കുക അങ്ങനെ ചെയ്താൽ മതി